ഒരു ഒരു വാദ്യോപകരണവും എനിക്ക് വായിക്കാൻ അറിയില്ല എന്നിരുന്നാലും സംഗീതോപകരണങ്ങൾ വായിക്കാനും വളരെയേറെ ഇൻടറസ്റ്റ് ഉള്ള ഒരാളായിരിന്നു പക്ഷേ എനിക്കതൊന്നും പഠിക്കാനുള്ള സാഹചര്യമോ സാഹചര്യങ്ങളൊന്നും ഒത്തുകിട്ടിയില്ല എന്നുതന്നെ പറയാം വളരെയേറെ ഇൻടറസ്റ്റ് ഉള്ള ആളും ആയിരിന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വായിക്കണം എന്ന് ആഗ്രഹിച്ചത് ഗിറ്റാറും ഓര്ഗനും ആയിരുന്നു അത് രണ്ടും പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളത് സത്യം തന്നെ ആണ് എങ്കിലും ഈ വാദ്യോപകരണങ്ങൾ ശരിക്കും വായിക്ക് വായിച്ച് എന്താണ് പറയുന്നത് ഫേമസ് ആകുക എന്നുള്ളത് അല്ലെങ്കിൽ പോലും അത് വായിച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കണം എന്ന് ഞാൻ വളരെയേറെ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം പലപ്പോഴും പല ഗാനമേളകളിൽ കാണുമ്പോഴും അല്ലെങ്കിൽ പല നമ്മുടെ പള്ളികളിലെ ക്വയറുകൾ കാണുമ്പോഴും അതിലൊക്കെ ഇത് ഉപയോഗിക്കുന്നവരെ കാണുമ്പോൾ അസൂയയോടുകൂടി നോക്കിയിരുന്നിട്ടുണ്ട് കാരണം നമ്മൾ ആഗ്രഹിച്ചു അത് നടന്നില്ല പിന്നെ ഇപ്പോൾ സമയമുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ പ്രായം കഴിഞ്ഞു എന്നൊരു തോന്നൽ കാരണം ഇപ്പോൾ അതിന് പഠിക്കാനും പറ്റിയിട്ടില്ല